ആണ് കുഴപ്പം ഇല്ലാന്നേ പറയാനുള്ളൂ കാരണം ഇപ്പം എല്ലാം പെർഫെക്റ്റായിട്ട് ഉള്ളൊരു സ്ഥലവില്ല ഇവിടെന്ന് പറയുമ്പോൾ ഇവിടൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ ഈ പ്രദേശത്തെ കോളേജിലെ വിദ്യാഭ്യാസ നിലവാരത്തെ ഞങ്ങൾ ഞാ പഠിക്കുന്ന ഈ കോളേജിൽ എന്ന് പറയുമ്പം ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജ്കളെയും വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ ദേർ ബട്ട് ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുമ്പം ഇപ്പം ഇപ്പം ഇവിടേന്ന് പറയുമ്പോൾ കോളേജ്കൾ ഇറ്റ്സ് ഫീൽ ലൈക്ക് സ്കൂൾ ഫ്രം നമുക്കത് വലിയ രീതി ഒരു കോളേജിൻ്റെ തായെട്ത്തില്ല ഞാൻ ടെൻത് വരെ സി ബി എസ് സി പഠിച്ചവരാണ് അല്ല ടെൻത്തും വേണ്ട ട്വൽത്ത് വരെ സി ബി എസ് സി പഠിച്ചൊരാളും നമ്മുടെ കാഴ്ചപ്പാടിൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്തോ ഫ്രീയാണ് ഭയങ്കര ഇതാണ് അങ്ങനാണ് ഇവിടെ ഭയങ്കര ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും അതിനന്നൊക്കെ പറയുമ്പം ഒരുമാതിരി എന്താ പറയുന്നേ ഒരു ഒരു സുഖവും ഇല്ലാന്ന് വേണേൽ പറയാം സം ഇവ്ടെല്ലാം ഉണ്ട് ഫ്രീഡം ഫ്രീഡം ഇവെൻസ് പരിപാടികളെല്ലാം അടിപൊളിയാണ് പക്ഷേ എന്ന് പറയുമ്പൊരു പേസ്ണലി ഇപ്പം എന്നോടെന്നല്ല എല്ലാരോടും ചോദിച്ച് കഴിഞ്ഞാലും എനിക്കറിയാം അവരെല്ലാം ഇപ്പം ആ ഒരു ആ ഒര് സെയിം അവസ്ഥ എന്നൊരു എന്നാ പറയ്ന്നൊരു ഉള്ളൊരു ഫീല് ഒരുമ ഒര് ഫീലില്ലേ ഇവിടുന്ന് പറയുമ്പോൾ ഇപ്പം ക്ലാസൊക്കെ തന്നാണേലും വലിയ രസമൊന്നും ഇല്ലായിരിക്കാം ഇപ്പം കഷ്ടപ്പെട്ടിരിക്കുക കഷ്ടപ്പെട്ട് കഴിയുക ടീച്ചേഴ്സൊക്കെയാണേലും ആ ഫസ്റ്റ് സെം പിന്നെയും പ്രശ്നം ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ആയിരുന്നു മാക്സിമം ഞങ്ങളുടേത് എന്ന് പറഞ്ഞാൽ ഞങ്ങള് പ്രത്യേകിച്ച് എന്നാ പറഞ്ഞ എല്ലാം പോയി വരിക ആ ഒരു സെറ്റപ്പായിരുന്നു നമ്മളുടെ സ്കൂൾ അപ്പം നമുക്ക് ആ ഒരു എന്നാ പറഞ്ഞാലും ഭയങ്കരം ഫ്രീഡം ഉണ്ടായിരുന്നു ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാസിൽ ഒരു സ്ട്രെസില്ല ഇപ്പം ഈ സെക്കൻഡ് സെം വന്നപ്പം ടീച്ചേഴ്സ് മാറിയപ്പോൾ തന്നെ ഭയങ്കര ഒരെന്നാ പറയുന്നത് അവരുടെ സ്വഭാവം അവരുടേത് നമുക്കായിട്ട് പറയുമ്പോൾ സ്കൂൾ കറക്റ്റിപ്പം അല്ലേലൊര് സ്കൂളിലെ ആംബിയൻസാണിപ്പോൾ അത് ആംബിയൻസും ഇവിടെ സ്കൂൾലൊരു ഒരു ഒര് ഫീലാണപ്പത് പോൽ അതിനുപരി ടീച്ചേഴ്സ് കൂടെ സെക്കൻഡ് സെമ്മിങ്ങനായോണ്ട് ഭയങ്കര ഒരുമാതിരി ഒരു ഫീലാണ് ഇപ്പം എന്താണ് പറയുന്നത് ഒരുമാതിരി ചോദ്യം ചെയ്തേലും ഒരുമാതിരി ഒരിതും ഇറ്റ്സ് ബട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരിത് കിട്ടുന്നില്ല എന്നാക്കെ പറഞ്ഞാലും പരിപാടിയും കോളേജിൻ്റെ പരിപാടികൾ ഇവന്റ്സും എല്ലാം സൂപ്പറാണ് എല്ലാം അടിപൊളിയാണ് പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനൊര് പ്രശ്നം മാത്രം നമ്മൾ സാറ്റിസ്ഫൈഡാണോന്ന് ചോദിച്ചാൽ യെസ് നോർമലി സാറ്റിസ്ഫൈഡ് ബട്ട് ദേർ വിൽ ബി സംതിംഗ് പ്രോബ്ലംസ് ഹാപ്പനിംഗ് അപ്പം നമുക്ക് പറ്റുന്നില്ല അങ്ങനെ ഒരു സിറ്റ്വേഷനാണ് അഡ്ജസ്ട് ചെയ്ത് പോകാവെന്നെ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഇപ്പം ഇവിടേന്ന് പറയുമ്പോൾ എജ്യുക്കേഷൻ്റെയൊക്കെ കാര്യത്തിലാണേല് പക്കായാണ് എജ്യുക്കേഷൻ എന്നൊക്കെ പറയുമ്പം നല്ല രീതിയിൽ നല്ല രീതിയിൽ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു മൊത്തം

പക്കാ ഒരു മാനേജ്മെന്റ് ഒരോട്ടോണോമസിൻറ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടിപ്പം ഒരു സാധാ ഒരു കോളേജിനെ വെച്ച് നോക്കുമ്പൊഴൊരോട്ടോണോമസ് കോളേജിനെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അതാണ് ഞാൻ പറഞ്ഞൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഫ്രീ ഫീൽ ഫ്രീ ഒരു ഒരു പ്രത്യേകമൊരു ഒര് ഫീല് നമുക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞല്ലോ അതൊന്ന് പറയുമ്പോൾ ഇവിടെ ഒട്ടോണമസിൻ്റേതായ ഒര് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അതിനൊരു ഇതുണ്ട് മീൻസൊരു നമ്മളാരും ഒന്നും അറിയുന്നില്ല എല്ലാം അയിൻ്റെതായ മുറയ്ക്ക് കഴിഞ്ഞു പോകുവാ അല്ലാണ്ട് സാധാരണ ഇപ്പം ഒരു പരിപാടി എന്തേലും നമ്മളെല്ലാ അതിൻ്റെ അകത്തൊരു നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമ്മളങ്ങനെയായിരുന്നു സ്കൂൾലൊക്ക ഇവിടേന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നത് എന്തൊക്കെയോ നടന്ന് പോവും അങ്ങനെ അത്രേ ഉള്ളൂ അതുപോലെ വേറൊന്നും ഇല്ല